എപ്പോൾ നടണമെന്നും എങ്ങനെ നടണമെന്നും നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ കാലാവസ്ഥ നോക്കി നമ്മുടെ മെയിൻ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നു പറയുന്നത് കാലാവസ്ഥയാണ് കാലാവസ്ഥ അനുസരിച്ചാണ് നമ്മളെന്തു നടണം എപ്പോൾ നടണം ഏതു കൃഷി എപ്പോളെന്ത് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പം മഴക്കാലമായാൽ അതിനുള്ള നെല്ലുകളാണെങ്കിലും നെല്ല് വിത്തുകളും അതുപോലെ മഴയത്ത് മഴ കുറച്ച് കുറയുമ്പോൾ പയറ് അങ്ങനെയുള്ള പച്ചക്കറി കൃഷികൾ അതുപോലെ എല്ലാ സാധനങ്ങളും മഴയെ മഴ കൂടുതലുള്ളപ്പം കാർഷികവിളകളിൽ തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും നടുന്നത് മഴയുള്ള സമയത്താണ് പിന്നെ വിത്തുകളൊക്കെ ചേനകൾ അങ്ങനെയുള്ള സാധനങ്ങൾ വിത്ത് വിത്ത് ചേ വി ചേനകൾ കാച്ചിലങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ കുംഭ മാസത്തിലൊക്കെ ഇങ്ങനെ ചേന കാച്ചിൽ ചേമ്പങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടുന്നു കപ്പയൊക്കെയാണെങ്കിലും പുതുമഴ പെയ്യുമ്പോഴും അങ്ങനെയോരോ കാലാവസ്ഥ നോക്കിയാണ് നമ്മളെപ്പോഴും നമ്മൾ നല്ല വേനൽക്ക് കൊണ്ടു പോയി ഇന്ന് എന്തു സാധനം നട്ടാലും പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ പലതിനും നമ്മൾ പൊതയിടേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഓരോന്നും ചെയ്യേണ്ട ട്രീറ്റെല്ലാം ചെയ്തു വേണം നടാൻ അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയും കണ്ടും നമ്മൾ കാലാവസ്ഥ നോക്കി എപ്പോൾ നടണം എങ്ങനെ നടണം എന്നു ചോദിച്ചാലതിന് കുഴി വെട്ടി കുഴി കുഴിക്കുള്ളിൽ താഴ്ത്തിയായിരിക്കും നടേണ്ടത് ചിലത് കുഴി എന്ന കുഴിക്ക് മുകളിൽ നട്ടിട്ട് അതിന് മുകളിൽ മണ്ണു കൂട്ടി കൊടുക്കുമായിരിക്കും ചെയ്യേണ്ടത് ചില സമയത്ത് മഴയുള്ളപ്പം മണ്ണു കൂട്ടി കൊടുക്കണം പല സാധനങ്ങൾ നടുമ്പം പിന്നെ എങ്ങനെ നടണമെന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിലപ്പം വളങ്ങളൊക്കെ അടിവളം കൊടുത്തു വേണം നടാൻ ചിലതിനടിവളം കൊടുക്കേണ്ട അങ്ങനങ്ങനെ പല രീതിയിൽ നമുക്ക് നടാം പിന്നീടായിരിക്കും വളം ചെയ്യുന്നത് അടി വളം കൊടുക്കേണ്ടാത്തതിന് പിന്നെ അത് കുറച്ച് ആയി കഴിഞ്ഞിട്ടായിരിക്കും വളം ചെയ്യേണ്ടത് പിന്നെ ദീർഘകാല കൃഷികളാണെങ്കിൽ നമ്മളത് അതുപോ അതുപോലെ സംരക്ഷിക്കണം പിന്നെ ഹ്രസ്വകാല വിളകളാണെങ്കിൽ നമ്മളതിനെ അതുപോലെ ചെയ്യണം ഇപ്പോരോന്നിനും അതിൻ്റേതായ സമയവും നടേണ്ട സമയങ്ങളും രീതികളും പിന്നെ അതിൽ ചെയ്യേണ്ട വളങ്ങളും എല്ലാം വേറെ വേറെയാണ് നമ്മളതെല്ലാം നോക്കി നോക്കി വേണം ഓരോ സമയത്തും നടാൻ ഇപ്പോളെന്തു നടണം നമ്മൾ കാലാവസ്ഥയാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് മഴ മഴയും മഞ്ഞിനെയും തണുപ്പിനെയും എല്ലാം ആശ്രയിച്ച് ഇപ്പം പച്ചക്കറികളിൽ ക്യാബേജ് കോളിഫ്ലവറങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ മഞ്ഞുകാല വിളകൾ ആ സമയത്ത് നമ്മൾ നടുക അതുപോലെ മഴക്കാലത്ത് ഉള്ളത് കൊടികളൊക്കെ നല്ല മഴയുള്ളപ്പം നടുക അത് ഓരോ സാധനങ്ങളും ഓരോ സമയത്ത് നമ്മൾ നട്ട് വിളവെടുക്കണം ഈ ലോകം മുഴുവനും റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതാണ് ഓരോ കാലാവസ്ഥ കാലാവസ്ഥയനുസരിച്ച് ലോകമെമ്പാടും ഇപ്പം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയായിരിക്കില്ല വേറൊരു സ്ഥലത്ത് അപ്പം അവിടെ അത് ആപ്പ്റ്റായിട്ട് നമുക്ക് നടാനും പറ്റും ഇവിടെ നടുന്നില്ലാത്ത സമയത്ത് അങ്ങനെ ലോകമെമ്പാടും നമുക്ക് ഏതു സമയത്ത് ഏതു വിളകളും മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നതിനൊരു പ്രധാന റീസൺ തന്നെ നമ്മൾ നടുന്നതിൻ്റെ കാലം വെച്ചാണ് ചില സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റ് സീസണനുസരിച്ച് സീസൺ സീസണിൽ ഒരുപാടുണ്ടാകുന്ന ആ വിളകൾ മാർക്കറ്റ് ഓഫ് സീസണിൽ നമ്മൾ നട്ടുവിളവെടുത്ത് ചിലപ്പോൾ അതിൻറ്റേതായ ഗുണങ്ങൾ കിട്ടും അങ്ങനെ സീസൺ നോക്കിയും കാലാവസ്ഥ നോക്കിയും

കാലാവസ്ഥ പിന്നെ മലകളിലാണേ മലകളിലെന്തൊക്കെ കൃഷി ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം ആ ആറ്റിൻ്റെ വക്കിലാണെങ്കിൽ അങ്ങനെ ആറ്റിൻ്റെ വക്കിലെന്തൊക്കെ കൃഷീ ചെയ്യണമെന്നുള്ളത് നമ്മൾ അങ്ങനെ നോക്കണം ഇപ്പം ഏതൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണോ വെള്ളം കയറുന്നിടത്താണെങ്കിൽ പല സാധനങ്ങൾ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ചീഞ്ഞു പോകും അങ്ങനെയുള്ള സ്ഥലത്ത് നടരുത് പിന്നെ വെള്ളപ്പൊക്കമുണ്ടായാലെന്തു ചെയ്യും അങ്ങനെയെല്ലാം മുൻകരുതലുകളെടുത്തിട്ട് വേണം നമ്മൾ കൃഷികൾ ചെയ്യാൻ നടുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ എത്ര നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നോ അതിനൊന്നും പ്രതിഫലം കിട്ടണമെന്നു പറയാൻ പറ്റില്ല പ്രതിഫലം കിട്ടില്ല കാരണം നമ്മൾ നടന്ന നടുന്ന സമയവും കാലാവസ്ഥയും നമ്മുടെ ഭാഗ്യവുമെല്ലാം വെച്ച് നമുക്ക് വിളകൾ കിട്ടുന്നു ചില സമയത്ത് നമ്മളെത്ര കഷ്ടപ്പെട്ട് നമ്മൾ നട്ടാലും എത്ര കഷ്ടപ്പെട്ട് നട്ടാലും എത്ര കഷ്ടപ്പെട്ട് നട്ടതുണ്ടാക്കി റെഡിയായി വന്നാലും ചിലപ്പോൾ അതിന് വിജയകരമായിരിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ നടന്ന രീതിയിൽ കൃഷി രീതികൾ എല്ലാം നമ്മൾ പഠിച്ച് എങ്ങനെ നടണം എപ്പോൾ നടണം എല്ലാം നമ്മൾ തീരുമാനിക്കണം ഈ കാലാവസ്ഥയും നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ മണ്ണും നമ്മുടെ നമുക്ക് വേണ്ട നമുക്ക് പണി ചെയ്യാൻ ആൾക്കാരെ വേണം അതിനുള്ള ശ്രോതസ്സ് വേണം അപ്പോൾ എല്ലാറ്റിനുമുള്ള അതിന് ഇതുണ്ടോയെന്നു നോക്കിയിട്ടു വേണം നമ്മളൊരു കാര്യം തീരുമാനിക്കാൻ ഇല്ല നമ്മളെല്ലാം ആദ്യം എല്ലാം നട്ട് വെച്ച് പിന്നെ അതിന് കണ്ടിന്യൂസ് ഫോളോ അപ്പ് അത് തുടർച്ചയായിട്ടതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കെല്ലാ കാര്യങ്ങളും തുടർച്ച് നമ്മളതിന് ചെയ്തതിനു ഫലം കിട്ടുകയുള്ളു നമ്മളത് കണ്ടിന്യൂസായിട്ടതിന് ഫോളോ അപ്പ് ചെയ്യണം അതാണ് മെയിൻ കാര്യങ്ങൾ നട്ടാൽ മാത്രം പോരാ അടിവളം തൊട്ട് നമ്മൾ നട്ട് പറിക്കുന്നിടം വരെ കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്നു പറയുന്നതു പോലെ തന്നെ നമ്മളെപ്പോൾ നടണം എങ്ങനെ നടണം എന്തു ചെയ്യണം എന്തൊക്കെയാണെന്നാദ്യം നമ്മൾ മൊത്തം കാൽകുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ ഒരു തവണ നമ്മളൊരു കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകളും നല്ല കാര്യങ്ങളുമെല്ലാം ഒരു ബുക്കിൽ കുറിച്ച് വെയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീടുത്തെ അതു നടുമ്പോൾ നമുക്കതിനുള്ള ഗുണം കിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് എത്രയോ തവണ വേണമെങ്കിലും അത് നടുകയും അതിന് ഫലം ഉണ്ടാകുകയും ചെയ്യണമെങ്കിൽ നമ്മളത് നല്ലതു പോലെ കൃഷി ചെയ്ത് ആ അത് ഫലം ഫലത്തിലെത്തുമ്പോൾ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയും നമുക്ക് എപ്പോൾ നടണം എങ്ങനെ നടണമെന്ന് തീരുമാനിക്കാൻ സാധിക്കും